ആ ഉണ്ട് എടാ പിന്നെ ഉണ്ട് എടാ രണ്ടുമൂന്നെണ്ണം ഉണ്ട് എന്തിനായിരുന്നു നിനക്ക് വേണ്ടത് ആ എന്തിനായിരുന്നു ആ ഓക്കേ ഓക്കേ ആ ഓ സെറ്റ് ചെയ്തുതരാമല്ലോ നീ ഇപ്പോൾ ഒന്ന് വന്ന് നോക്കുവാണെങ്കിൽ നല്ലതായിരിക്കും കാരണം കുറേയെണ്ണമുണ്ട് അടിപൊളിയായിരിക്കുന്നു ഓക്കേ അതെന്തായാലും ഇവിടെത്തന്നെ രണ്ടുമൂന്നെണ്ണം ഉണ്ട് നമ്മളിപ്പോൾ ഈ പുഴ സൈഡിൽ ഹട്ട് പോലെ അങ്ങനത്തെയൊക്കെ പറ്റില്ലേ ലക്ഷ്മി ആ ട്രീ ഹൗസ് ഉണ്ട് രണ്ടുമൂന്നെണ്ണം ഉണ്ട് നമുക്കിവിടെ ഈ കുറുവ ദ്വീപില്ലേ ആ അതിൻ്റെ ആ ഭാഗങ്ങളിൽ രണ്ടുമൂന്നെണ്ണം ഉണ്ട് അപ്പോൾ അതവിടെ അവിടെ ഒന്നും പ്രശ്നമില്ലല്ലോ വേണമല്ലേ ആ ഓക്കേ ഇവിടെ രണ്ടുമൂന്നെണ്ണം ഉണ്ട് വേറെ പ്രശ്നങ്ങൾ കാര്യങ്ങളൊന്നുമില്ല ഇടയ്ക്ക് വന്യജീവികൾ കാര്യങ്ങളൊക്കെ വരും അതു പ്രശ്നമാണോ അവർക്ക് ഓ അത് ആ അപ്പോൾ ആ ഓക്കേ ഓക്കേ നമ്മളാണെങ്കിൽ ഇവിടെയൊക്കെ ഇപ്പോൾ കടുവയിറങ്ങുന്ന കാര്യങ്ങളൊക്കെ ഉണ്ട് ആ അതെന്തായാലും ആണ് നമുക്ക് ട്രീ ഹട്ട് എന്നാൽ നോക്കാം അതാണെങ്കിൽ കടുവ അങ്ങനെ മേലോട്ടങ്ങനെ കയറില്ലല്ലോ ആ അതാണെങ്കിൽ ഓ അല്ല എന്നാലും കടുവയെ പേടിച്ചിട്ട് നമുക്ക് വരാണ്ടൊന്നും ഇരിക്കാൻ പറ്റില്ലല്ലോ എന്തായാലും നമുക്ക് ട്രീ ഹട്ട് നോക്കാം അതാണെങ്കിൽ കുറച്ചൂടെ നല്ലതായിരിക്കും അല്ല അതിൻ്റെ ഫുൾ സെറ്റ് അപ്പ് ഒക്കെ ഉള്ള ട്രീ ഹട്ട് കാര്യങ്ങളൊക്കെ ഉണ്ട് അതിപ്പം ആന താഴേക്കൂടെ ഒക്കെ പോകുന്നതൊക്കെ കാണാൻ കഴിയും അപ്പോൾ അവർക്കൊരു ആംബിയൻസും കാര്യങ്ങളൊക്കെ കിട്ടുകയും ചെയ്യും നീ എന്നാൽ നാളെയോ മറ്റന്നാളോ ഒന്നു വാ എന്നാൽ ഓക്കേ എന്നാൽ ഒന്ന് വന്നിട്ടൊന്ന് വിളിച്ചാൽ മതി കേട്ടോ ഓക്കേ മതി